ഇത് ഇന്നലെ ആക്സിഡന്റ് ആയി കണ്ട് ഡോക്ടറെ കാണിച്ച പേഷ്യന്റാണ് പേര് ഫാത്തിമ

രണ്ട് മുട്ടും തലയും ആ അന്ന് അന്നേരം ഉച്ചക്കാണ് വന്നത് അപ്പോൾ ഇപ്പം തല തലയ്ക്ക് ഭയങ്കര ഒര് ഇത് ഉണ്ട് ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് ആ പനിയും ചെറുതായിട്ട് പനി ഉണ്ട് പനിക്കണൊണ്ട്

കിടന്ന ഭാഗത്ത്

അല്ലല്ല ഒന്നെന്തോ തൊടുമ്പോൾ വേദന ഉണ്ട് ആ ആ അങ്ങനാ ഇനിയിപ്പം ആ ചെറുതായിട്ട് ആ അതെ

അത് കഴിഞ്ഞോ ആയിക്കോട്ടെ ഇല്ലില്ല കഴിച്ചിട്ടില്ല

ആ ആ കേട്ടിട്ടുണ്ട് ആ ആ ആ ആ വരും ഇത് ആ ആ ആ ശരി ആ ശരി ആ വരും വരും

ആ അതെ ഒര് ആ ആ അപ്പം ചെറുതായിട്ട് പനിയാണേ ഇപ്പം പനിയുണ്ട് അപ്പം പനിച്ചിട്ട് വേദന വരുവാണോ അതും അറിയില്ല

ആ ശരി